നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും ഈ ഒരു കേരളത്തിൻ്റെ തെക്ക് ഭാഗം അതായത് പത്തനംതിട്ട ജില്ലയിൽ മെയിനായിട്ടും പ്രധാനമായിട്ടും ഉള്ളത് ഈ റബ്ബർ കൃഷിയാണ് ഒന്നാമത് നിൽക്കുന്നത് ഇപ്പം ഏതൊരു വ്യക്തികളുടെ സ്ഥലങ്ങളിലായാലും അവർ കൂടുതലും റബ്ബർ കൃഷിയാണ് ആശ്രയിക്കുന്നത് അത് പണ്ട് കാലത്ത് തൊട്ട് ആ റബ്ബർ കൃഷിയെയാണവർ ആശ്രയിക്കുന്നത് റബർ വിറ്റാലധികം പണം കിട്ടുമെന്നുള്ളൊരു പ്രധാനമായിട്ടുള്ളൊരു കാരണം കൊണ്ടാണവർ റബർ കൃഷി കൃഷിയെ ആശ്രയിക്കുന്നത് അത് കാരണമല്ല അവർ പെട്ടന്ന് വളരുകയും അതിൽ നിന്ന് റബർ പാൽ നമുക്ക് പെട്ടന്ന് കിട്ടുകയും ചെയ്യും നമുക്കൊത്തിരി പണം സമ്പാദിക്കാനുമൊക്കെ സാധിക്കും പണ്ട് കാലത്തൊക്കെ കപ്പ വാഴ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പം കൂടുതലും റബ്ബറാണ് എന്ത് എന്ത് പറഞ്ഞാലും പിന്നെയുള്ളത് കുരുമുളക് കൃഷി വാഴ കൃഷി കപ്പ കൃഷി ഇതൊക്കെയാണ് കൂടുതൽ വ്യവസായങ്ങളായിട്ട് നമ്മുടെയിവിടെ ഉള്ളത് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ളത് റബ്ബറ് വ്യവസായമാണ് നമ്മുടെ ഈ തെക്കൻ ജില്ലകളിൽ പത്തനംതിട്ടയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇപ്പം ഇതിൽ കൂടുതലും ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെയിടയ്ക്കാണ് ഈ റബർ കൃഷി പ്രധാനമായിട്ടുമുള്ളത് പത്തനംതിട്ട ജില്ല മാത്രമല്ല കോട്ടയം ജില്ലയിലും മെയിനായിട്ട് റബർ കൃഷിയാണുള്ളത് ഏതൊരു മലയോരമേഖലകളിൽ എവിടെ പോയാലും റബർ കൃഷി പ്രധാനമായിട്ടും അവരാശ്രയിക്കുന്നത് അതിൽ കൂടുതലവർക്ക് അവർ പ്രതീക്ഷിക്കുന്നതവർക്ക് കൂടുതൽ പണം ലഭിക്കും അവർ അവർക്കതുകൊണ്ട് അവരുടെ കുടുംബത്തെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അവർ റബർ കൃഷിയിൽ ആശ്രയിക്കുന്നത്